നമ്മളെ പ്രദേശത്ത് അതായത് ഉണ്ടാക്കാറുള്ള പരമ്പരാഗത വിഭവങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുക്ക് പണ്ട് തൊട്ടേ അതായത് പരമ്പരാഗതമായിട്ടുള്ള വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് തന്നെ ആയിരിക്കും കൂടുതലും ചില വീട്ടിൽ അതായത് നമ്മളെ അത്യാവശ്യം നല്ല പൈസക്കാരുടെ വീട്ടിലൊക്കെ ആയിരിക്കും രാവിലെ അതായത് പലഹാരം അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ പണ്ടൊക്കെ അല്ലാണ്ട് നമ്മളെ പാവപെട്ട വീട്ടിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് നേരവും ചോറായിരിക്കും പിന്നെ അതുപോലെ ചമ്മന്തി കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ആയിരിക്കും പിന്നെ സാമ്പാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പിന്നെ കുറവായിരിക്കും പിന്നെ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ എല്ലാം മാറി തുടങ്ങി പിന്നെ എല്ലാരുടെയും ജീവിത ശൈലി മാറി തുടങ്ങി അപ്പം എല്ലാവരുടെ വീട്ടിലും അത്യാവശ്യം നല്ലവണ്ണം ഫുഡൊക്കെ ഉണ്ടാക്കും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ചോറ് ആണെങ്കിൽ സാമ്പാർ അങ്ങനെയുള്ള പരിപ്പ് കറി അങ്ങനെ ഉള്ള കറി അങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലഹാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കൂടുതലും രാവിലെ ഇഡ്ലി ദോശ പുട്ട് പിന്നെ പൂരി ഇടിയപ്പം അങ്ങനെയുള്ള പിന്നെ ഇതൊക്കെ ആയിരിക്കും രാത്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില വീടുകളിലൊക്കെ രാത്രി പിന്നെ ചപ്പാത്തി അങ്ങനെ ഉള്ളതായിരിക്കും പക്ഷെ മിക്ക വീടുകളിലും ചോറ് കാര്യങ്ങളൊക്കെ ആയിരിക്കും രാത്രി വെക്കാറ്